ശരീര ഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് നമ്മുടെ ഗ്രാമത്തിലുള്ള പ്രചാരത്തിലുള്ള ചില നാട്ടു വൈദ്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക ഒന്നുകിൽ നല്ല ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ മുട്ട പാൽ അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് ശരീര ഭാരം കൂട്ടാൻ പറ്റുന്ന ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല നല്ലവണ്ണം എന്താണ് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ എന്താണ് പറയുക മുട്ട എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുക പിന്നെ എന്താണ് പറയുക ഈ ചിക്കൻ മീൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള നല്ല നല്ല ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ മുട്ടേൻ്റെ വെള്ള മുട്ടേൻ്റെ മുട്ട പുഴുങ്ങി തിന്നുക അതുപോലെ തന്നെ എല്ലാ ദിവസവും പാൽ പാലും മുട്ടയാണ് മെയിൻ ആയിട്ടും ശരീരഭാരം കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക നല്ല വെള്ളം കുടിക്കുക നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു ദിവസം എട്ട് ലിറ്റർ വെള്ളം എങ്കിലും മാക്സിമം നമ്മൾ കുടിക്കണം എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ശരീര ഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ടിപ്പ് എന്നൊക്കെ പറയുന്നത് മെയിൻ ആയിട്ടും പാലും മുട്ടയും പാലും മുട്ടയും പിന്നെ ബാക്കി പ്രോട്ടീൻ അടങ്ങിയ നല്ല നല്ല വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ നല്ല നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ശരീര ഭാരം കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല മ്രാ മാർഗം എന്ന് പറയുന്നത്